എനിക്ക് ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യങ്ങളൊന്നുവില്ല എനിക്കതിനോട് വലിയ താൽപ്പര്യവും തോന്നിയിട്ടില്ല കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സാറ് ഈ ഷെയർ മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന് അവസാനം പുള്ളി കടവും കടത്തിൻ്റെ പുറത്ത് കടവുമായി അതോ ഇനി ഷെയർ മാർക്കറ്റ് മാത്രമാണോ ഓൺലൈൻ പ്ലെയിങ്ങ് ആടുന്നു ഗെയിംമ് പ്ലെയിങ്ങ് ആയിരുന്നോ എന്തോ അറിയത്തില്ല ഏതായാലും സാറ് ഓഫീസിൽ നിന്നുള്ള പൈസയെടുത്തു സാറിനെ ഡിസ്മിസ് ചെയ്യുകയും എല്ലാം ചെയ്തു സാറ് നാശത്തിലേക്ക് ആ കുടുംബം വളരെ ഒരു ദയനീയ അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്കതിനോട് വളരെ താൽപ്പര്യമില്ല പുതിയ ഡിജിറ്റൽ ആപ്പുകൾ വഴിയാക്കെയാണിതെല്ലാം ഒ ഓൺലൈൻ ഗെയിമിങ്ങും ഈ സാ മാർക്കറ്റിങ്ങും ഷെയർ മാർക്കറ്റിങ്ങുവൊക്കെ വന്നത് അതിലപകട സാധ്യതകൾ ശരിക്കും അതില് ഷെയറ് ചെയ്യാനറിയാൻ മേലാത്തവർ അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി കൂടുതല് ഗ്രാഹ്യമില്ല ഞാനതിനൊട്ടറിയാനും ശ്രമിച്ചിട്ടില്ല അത് അപകസാധ്യത ഒള്ളതായിട്ടാണ് എൻ്റെ കണ്മുമ്പിൽ കണ്ടിട്ടുള്ളത് അനുഭവങ്ങള് പക്ഷേ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അതുതന്നെ നോക്കിയിരുന്ന് അതിനോട് കഴിവുള്ളവരും ഒക്കെയായിരിക്കാം അതിൽ കൂടുതല് നേടിയിട്ടുള്ളത് പക്ഷേ എനിക്കതിനെപ്പറ്റി വലിയ അറിവുകളൊന്നും തന്നെയില്ല